കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടില്ല ഭാഷാഭേദങ്ങൾ എന്നു പറഞ്ഞാൽ മലയാളത്തിൽ ഇപ്പോൾ മലപ്പുറം പറയുന്നതായിരിക്കില്ല കോഴിക്കോട് ജില്ലയിൽ പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ പറയുന്നതല്ല കാസർകോഡ് കണ്ണൂർ തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളെ ഭാഷയ്ക്ക് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് മലയാളം ഭാഷയിൽ വരുന്ന ഒരു വാക്കിന് തന്നെ പല മീനിങ്ങുള്ള വരുന്നതുണ്ട് പല എന്താ പറയല് പല ജില്ലകളിലും ഇപ്പോൾ നമ്മൾ ഇവിടെ തക്കാളി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് അതിനെ പറയുന്നത് തക്കാളിക്ക പറയും പിന്നെ ഉണക്ക് മീനിന് പറയുന്നത് ഇവിടെ ഉണക്ക മീൻ എന്ന് പറഞ്ഞാൽ അവർ അവിടെ പറയുന്ന കരുവാടെന്ന് പറയും പിന്നെ കോട്ടയം അങ്ങനെ ആ ഇടുക്കി ആ ജില്ലയിലൊക്കെ അങ്ങനെ തന്നെ പറയുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ഉറങ്ങുക എന്ന് പറയുന്നതിന് ഓല് ചാച്ചുക എന്ന് പറയും പിന്നേ പിന്നെ എന്താണ് ഇപ്പം കുറേ കാര്യങ്ങളിൽ അങ്ങനെ ഉണ്ട് നമ്മൾ ഇവിടെ കപ്പ മരച്ചീനി എന്ന് കപ്പയ്ക്കാണെങ്കിൽ തന്നെ മരച്ചീനി കപ്പ പൂള മലയാളി ഇവിടെ മലപ്പുറം ജില്ലയിൽ പറയും പൂള എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഇടത്തൊക്കെ പറയുന്നത് ഈ പൂള എന്ന് പറഞ്ഞ വാക്ക് തെറിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എല്ലാ ഓരോ കാര്യങ്ങൾക്കും പിന്നേ പിന്നെ വന്നിട്ടിപ്പം എന്താണ് ഇനി ഇപ്പോൾ സംസാരത്തിലാണെങ്കിലും അതുപോലെ അങ്ങനെ തന്നെയാണ് കുറച്ചു നീട്ടക്കുറച്ചിലും ഏറ്റക്കുറച്ചിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് അവർ സംസാരം തിരുവനന്തപുരത്താത്താണെങ്കിൽ കുറച്ച് സ്പീഡ് കൂടുതലായിട്ട് വരും നമുക്ക് തോന്നും അവർ പറയും നമ്മളെ ഇതാണ് കൂടുതൽ സ്പീഡെന്ന് പറയും പിന്നെ ചിലപ്പോൾ ഓരോ ഭാഷകളൊകൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരിച്ചു ചിരിച്ചു ഇതായി പോകും അങ്ങനത്തെ ഭാഷകളും ഉണ്ട് പിന്നെ എന്തി എവിടെ എന്നുള്ളതിന് എന്തെന്ന് നമ്മൾ പറയുന്നതിന് അവർ ചോദിക്കും എന്തിര് പിന്നെ എവിടെയാണെന്നുള്ളതിന് ചോദിക്കും എന്തരടെ തിരുവന്തപുരത്ത് പറയുന്നത് അതൊക്കെ നമ്മുടെ ഇവിടെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ചിരിയല്ലേ വരുള്ളൂ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ കേൾക്കുമ്പോൾ ചിരി വരും എല്ലാത്തിനും ഇങ്ങള് ഞങ്ങള് പോണ് വരണ് അങ്ങനെയെക്കെയാണ് മലപ്പുറം ജില്ലയിൽ പറയുക പക്ഷേ അത് തിരുവനന്തപുരം കോട്ടയം എറണാകുളം അങ്ങട്ട അങ്ങനെ അവിടെയൊക്കെയാണ് എവിടെയെടെ എവിടെ പോണടെ എങ്ങോട്ട് വരുന്നെടെ ഇരിയടെ വാടേ പോടെ അങ്ങനൊക്കെയാണ് അവരെ സംസാരത്തിൽ ഉണ്ടാവുന്നത് അപ്പം നമ്മൾ മലപ്പുറം ജില്ല എന്ന് വച്ചാൽ തന്നെ ഒരു എ ന്താണ് ഇപ്പം പറയുക അങ്ങനത്തെയൊക്കെ ഒരു ഇതാണ് കുറേ മാറ്റങ്ങൾ ഉണ്ട് ഒത്തിരി ഒത്തിരി പിന്നെ പച്ചക്കറി ഐറ്റംസിൽ തന്നെ ഉണ്ട് ഓരോ തരം മീൻ ഐറ്റംസിലും ഉണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മത്തി എന്ന് പറുകയാണെങ്കിൽ കോഴിക്കോട് തിരുവനന്തപുരം ജില്ലയിൽ അതിന് പറയുന്നത് ചാള പിന്നെ ഉണക്ക മീനിനൊക്കെ ഒരുപാട് ഇവിടെ ഉണക്ക മീനെന്ന് പറയും അങ്ങനെ കുറേ എണ്ണത്തിനുണ്ട് ഒന്നിനും രണ്ടിനും ഒന്നും അല്ല കുറേ മാറ്റങ്ങൾ ഉണ്ട് പഠിച്ചിട്ടില്ല പക്ഷേ അവർ പറയുമ്പോൾ കേട്ടു അവരോട് പരസ്പരം പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ഓരോ ഇതുണ്ട്